കോഴിക്കോട് ജില്ലയില് നമുക്ക് പ്രധാനമായിട്ടും ഗതാഗതമെന്നു പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ടും ആള്ക്കാര് ഉപയോഗിക്കുന്നത് നമുക്ക് റോഡു മാര്ഗ്ഗം ഉള്ള ഗതാഗതങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ് കൂടുതലായിട്ടും ആള്ക്കാര് ഉപയോഗിക്കുന്നത് എന്ന് വേണമെങ്കില് പറയാം കാരണം നമ്മളിപ്പോള് കൂടുതലായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ യൂസ് ചെയ്യുന്നത് എപ്പൊഴും ഗതാഗതങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അതായത് നമ്മളുടെ റോഡ് മാര്ഗ്ഗമുള്ള ഗതാഗതങ്ങളും കാര്യങ്ങളുമോക്കെയാണ് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അതിനാണെങ്കില് നമുക്ക് വലിയ കോസ്റ്റ് അങ്ങനയോന്നും ഉണ്ടാവൂല എപ്പോഴും നമുക്ക് പൈസ കുറച്ചു കുറഞ്ഞ രീതിയില് നമുക്ക് ഉപയോഗിക്കാന് പറ്റുന്ന ഒരു നല്ല മാര്ഗ്ഗമാണു റോഡ് മാര്ഗ്ഗം എന്നത് പിന്നെ പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഇപ്പോൾ എല്ലാ വീട്ടിലും വണ്ടിയും കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ നമുക്ക് അത് ദൈനം ദിന ജീവിതത്തില് നമ്മളുടെ യാത്ര എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒഴിച്ച് കൂടാന് പറ്റാത്ത ഒന്നായി നല്ലൊരു റോഡ് എപ്പൊഴും എന്താ പറയുക നമുക്ക് ഹോസ്പിറ്റലില് പോകണമെങ്കിൽ തന്നെ നമുക്ക് അതായത് ഇങ്ങനത്തെ റോഡുകളിലൂടെയാണ് നമ്മള് കൂടുതലായിട്ടും പോകുന്നത് പിന്നെന്നു പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് കോഴിക്കോടുള്ള റെയില്വേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വേറൊരു സംസ്ഥാനത്തേക്ക് ആണെങ്കിലും വേറൊരു ജില്ലയിലേക്ക് ആണെങ്കിലും പോകുന്നതൊക്കെ നമ്മള് കൂടുതലും ട്രെയ്നിനെയൊക്കെ ആശ്രയിക്കാറുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയര്പോര്ട്ട് ആണ് അത് നമ്മള് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോള് നമ്മള് കൂടുതലായിട്ടും നമ്മള് വിമാനത്താവളങ്ങളില് വിമാനത്തിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില് കൂടുതലും പോവുക പിന്നെ നമ്മള് കൂടുതലായിട്ടും നമ്മള് റോഡ് മാര്ഗ്ഗമുള്ള ഇതാണ് വിളിക്കുന്നത്